എനിക്ക് കൊച്ച് കുട്ടിയായിരുന്നപ്പം തൊട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പാട്ട് പഠിക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു പാട്ട് കേൾക്കുക പാട്ട് പാടുക പക്ഷേ എനിക്ക് പാട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല അത് ഞാൻ വളരെ തെറ്റില്ലാതെ പാടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എന്നാലും എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റിയില്ല ഇപ്പോഴും എൻ്റെ മനസ്സിൽ പാട്ട് പഠിക്കാമായിരുന്നു അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട് ഇപ്പോഴും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് സമയം പോകാൻ എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേൾക്കുക അതാണ് എനിക്കിഷ്ടം ഞാൻ എൻ്റെ കുട്ടികളോടും പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കുന്നതാണ് അത് ഇന്ന ടൈപ്പ് പാട്ട് എന്നൊന്നും ഇല്ല എന്തെങ്കിലും ടൈപ്പ് പാട്ട് അത് കേൾക്കുക അതെനിക്ക് വലിയ ഇഷ്ടം ഉള്ളതാണ് പക്ഷേ എനിക്ക് പാട്ട് പഠിക്കാനോ അത് അതിനായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും പറ്റിയില്ല അത് പക്ഷേ അത് അന്ന് പറ്റിയില്ലെങ്കിലും ഇപ്പം നമ്മൾ അത് കേൾക്കുക അതാണ് ഒരു സന്തോഷം പക്ഷേ എൻ്റെ കുട്ടികൾക്കൊന്നും പാട്ട് വലിയ താൽപര്യം ഒന്നുമില്ല കാരണം അവരൊക്കെ വേറെയൊരു ടൈപ്പ് ആൾക്കാർ അവർക്ക് ടി വി കാണുക അല്ലെങ്കിൽ ഫോണിൽ കാണുക അങ്ങനെയൊക്കെ പക്ഷേ പാട്ട് എന്ന് പറഞ്ഞാൽ എന്നും അതായത് നമുക്ക് എന്താണ് പറയുക ജീവിതകാലം മുഴുവനും ഇഷ്ടം ഉള്ളൊരു കാര്യമാണ് പാട്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടേ ചില ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ചിലർക്ക് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ് അത് മുമ്പോട്ട് പഠിച്ചവരുണ്ടാവും ചിലവർ പഠിക്കാത്തവരുണ്ടാവും ചിലവർക്ക് അത് ചിലപ്പം സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരിക്കും പഠിക്കാത്തത് ചിലർക്ക് അതിന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും പഠിക്കാത്തത് അതുപോലെ ഒക്കെ എനിക്കും ഇപ്പം പാട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ എന്തായാലും പാട്ട് കേൾക്കുക അത് ഒരു നല്ല ഒരു അനുഭവം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ